ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞുവരുമ്പോള് പല രാജ്യങ്ങളും ആയി താരതമ്യം ചെയ്യാൻ പറ്റുന്ന നിലയിൽത്തന്നെ ആണുള്ളത് നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങള് ഒരുപാട് ഉണ്ട് അതുപോലെതന്നെ പ്രാഥമിക ഹൈ സ്കൂൾ തലങ്ങളിൽ ലിറ്ററസി നിരക്കുകളും എൻറോൾമെൻറ്റ് നമ്പറുകളും മെച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ വെല്ലുവിളികൾ ഒക്കെ പറഞ്ഞുവരുമ്പോള് സർക്കാർ സ്കൂളുകളിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഓരോ സ്കൂളുകളനുസരിച്ച് മാറിമാറി വരുന്നതായിട്ടാണ് കാണുന്നത് ചില സ്ഥലത്ത് നല്ല ഉയർന്നരീതിയിലുള്ള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ചില സ്ഥലത്ത് മോശം രീതിയുമാണ് കാണപ്പെടുന്നത് അതുപോലെതന്നെ സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല സ്കൂളുകളിലും സിലബസ് കാണാതെ പഠിക്കാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ അത് മനസ്സിലാക്കി പഠിച്ച് അത് ജീവിതത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ആണ് ആക്ച്വലി പഠിപ്പിച്ചുകൊടുക്കേണ്ടത് ഇപ്പോള് അങ്ങനെത്തെ ഒരു രീതി പിന്തുടരുന്ന സ്കൂളുകള് ഉണ്ടെങ്കിലും അല്ലാത്തതാണ് കുറച്ചുകൂടി കൂടുതൽ പിന്നെ ഐ ഐ ടി ഐ ഐ എം പോലുള്ള ഗുണമേന്മയുള്ള ഉന്നതവിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഇപ്പോഴും അതെല്ലാം ലഭ്യമല്ല പിന്നെ പല ഗ്രാമപ്രദേശങ്ങളില് സ്കൂളുകളിലും ആധുനിക സൗകര്യങ്ങളോ ശുദ്ധമായ കുടിവെള്ളം ശരിയായ ശുചിമുറി അങ്ങനെ ഉള്ളവ ലഭ്യമല്ല അതുപോലെതന്നെ വിദ്യാഭ്യാസ വ്യവസ്ഥയില് സാങ്കേതികവിദ്യയുടെ പ്രയോഗം എന്നു പറയുമ്പോള് അതിലൊരു നല്ല പ്രാധാന്യമുണ്ട് എന്നാലും പുതിയ ആധുനിക പഠനരീതികളും ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിലേക്ക് അധികം വന്നെത്തിയിട്ടില്ല അതോടെ ഇങ്ങനത്തെ പുതിയ ആധുനികമായ പുതിയ കാര്യങ്ങളും കൂടി നമ്മുടെ സിലബസ്സിലേക്കും എല്ലാം ചേർക്കേണ്ടതുണ്ട് അതുപോലെതന്നെ ഗവേഷണ സൗകര്യങ്ങളും എല്ലാ ഇടത്തും വേണ്ടവിധമില്ല അതിനുള്ള ഫണ്ടിംഗ് ഒന്നും എല്ലാ ഇടത്തും ഇല്ല അപ്പോള് ഇതിനായിട്ട് ഒരു പ്രത്യേക നിക്ഷേപം നല്ലരീതിയില് വേണ്ടതാണ് അതുപോലെ തന്നെ അധ്യാപകരുടെ കാര്യം എടുത്തുനോക്കിയാലും എല്ലാ അധ്യാപകർക്കും പുതിയ രീതിയിൽ അവര് ട്രെയ്ന്ഡല്ല അപ്പോള് എല്ലാ അധ്യാപകരെയും ഓരോ പുതിയ മാറ്റങ്ങൾ സിലബസ്സില് എല്ലാത്തിനും വരുമ്പോഴും അതനുസരിച്ച് അധ്യാപകര് അതിനനുസരിച്ച് പരിശീലിപ്പിക്കേണ്ടത് ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ് അതുപോലെതന്നെ സിലബസ്സ് ആയാലും ഓരോ പുതിയ ശാസ്ത്രീയ കണ്ടുപിടിത്തങ്ങളും നമ്മുടെ നാടിൻ്റെ പുരോഗതിയുമെല്ലാം അനുസരിച്ച് സിലബസ്സും അടിക്കടി പരിഷ്കരിക്കേണ്ടതാണ് ഇതെല്ലാമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെകുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ